നവജാത ശിശുവിൻ്റെ ആദ്യത്തെ ചടങ്ങ് എന്നു പറയുന്നത് നൂലുകെട്ട് ചടങ്ങായിരിക്കും ഒരു കറുത്ത ചരട് കെട്ടുന്ന ചടങ്ങാണ് അതിനുശേഷം ഇരുപത്തെട്ട് ഉണ്ടാവും ഇരുപത്തെട്ടിനാണ് അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും എല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ട് കുട്ടിക്ക് എന്താണ് കണ്ണെഴുതുന്ന ചടങ്ങും പേരിടുന്ന ചടങ്ങുണ്ടാകും അതിന്ശേഷം ഒഫ്ഫീഷ്യലായിട്ട് പിന്നീടൊരു പേരിടൽ ചടങ്ങ് അമ്പത്താറിന് നടക്കും അതിനുശേഷം നമ്മൾ ചോറൂണ് കൊടുക്കാം ആറു മാസം കഴിയുമ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകാറുണ്ട് അമ്പലം അമ്പലത്തിൽ വെച്ചിട്ടയിരിക്കും നടത്തുക അതിനുശേഷം ആറ് മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലൊക്കെ ആവുമ്പം കുട്ടീനെ അച്ഛൻ്റെ വീട്ടിലേയ്ക്ക് കൊണ്ടുപോകും അവിടെ വെച്ചിട്ട് പിന്നീട് എന്താണ് അച്ഛൻ്റെ വീട്ടുകാർ എല്ലാവരുംകൂടി ജോയിൻ ചെയ്തുകൊണ്ട് കുട്ടിയുടെ മുടിമുറിക്കൽ ചടങ്ങുകളുണ്ടാവാറുണ്ട് അതും കുറച്ച് ആഘോഷപരമായിട്ട് എടയ്ക്ക് നടക്കാറുണ്ട് ഇതൊക്കെയാണ് ഒരു വർഷത്തില് കുട്ടിയുടെ കുട്ടിക്ക് വേണ്ടി നടത്തുന്ന ആചാരങ്ങളെന്ന് പറയുന്നത്